ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒന്ന് രണ്ട് കുർത്തീസൊക്കെ മേടിച്ചായിരുന്നു അപ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്യാനായിട്ട് സാധാരണ ഒരുപാട് നൂലാമാലകളും ചോദ്യങ്ങളൊക്കെ പല ഓൺലൈൻ സൈറ്റുകളും ചോദിക്കാറുണ്ട് പക്ഷേ ഇത് ഈ ഒരു സൈറ്റിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടാണെങ്കിൽ വളരെ എന്താണ് പറയുക വളരെ ഈസിയായിട്ട് എനിക്ക് ചെക്ക്ഔട്ട് ചെയ്യാനും പെയ്മെൻ്റ് നടത്താനും ഒക്കെ പറ്റി ഒരുപാട് നൂലാമാലകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല അതുപോലെ തന്നെ അവരുടെ സാധനങ്ങളും അവരുടെ തുണിത്തരങ്ങളുമൊക്കെ എനിക്ക് ഭയങ്കരാമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ചെക്ക്ഔട്ടെല്ലാം വളരെ മനോഹരമായിട്ട് വളരെ ഈസി ആയിട്ട് നടന്നു അപ്പം ഇങ്ങനെ സമയമില്ലാത്തവർകൊക്കെ പ്രത്യേകിച്ചും വളരെ എളുപ്പമാണ് അതുപോലെ ഞാൻ കാർഡിൻ്റെ ഞാൻ കാർഡ് വച്ചിട്ടാണ് പെയ്മെൻ്റ് ചെയ്തത് അപ്പം ഞാൻ നേരത്തെ ഈ സൈറ്റിൽ കയറിയപ്പോൾ അവർ കാർഡിൻ്റെ ഇൻഫർമേഷൻ അവർ സേവ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പാസ്സ്വേർഡ് അടിക്കേണ്ട ആവശ്യം മാത്രമേ വന്നുള്ളൂ അതുകൊണ്ടും എല്ലാംകൊണ്ടും എനിക്ക് വളരെ ഒരു എളുപ്പത്തിൽ എൻ്റെ ഷോപ്പിംഗ് തീർക്കാൻ പറ്റി